ഹലോ അടിപൊളി സോഫ ആയിരുന്നു ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സോഫകൾ കണ്ടു അതിന്റെ കുഷ്യൻസ് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് നല്ല സീറ്റ് നല്ല വലിയ സീറ്റുള്ളത് ഉണ്ട് അതായത് ചുരുങ്ങിയത് ഉണ്ട് പിന്നെ സിംഗിളായിട്ടുള്ളത് ഉണ്ട് ഡബിളായിട്ടുണ്ട് ത്രിബിളായിട്ടുണ്ട് ചെയർ അത്രയും നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രൊഡക്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇപ്പം അതിൽത്തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് കിടക്കാൻ സൗകര്യം ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക പല വെറൈറ്റി ഇനി ഇപ്പം നമുക്ക് സ്പേസ് ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ അതിനനുസരിച്ച് സ്പേസ് ഉള്ള രീതിയിൽ നമുക്ക് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു പ്രൊഡക്ട് കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ സോഫ ഐറ്റംസിൽ നമ്മൾ കണ്ടത് നമുക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതുപോലെയെന്ന് പറയുമ്പോൾ ചില സോഫകളുടെ പ്രശ്നം എന്നു പറഞ്ഞാൽ അത് ഭയങ്കര ഹാർഡാണ് പിന്നെ ചകിരി നിറച്ചതൊക്കെയായിട്ട് വരുന്നുണ്ട് ഭയങ്കര എന്താ പറയുക ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഒരു സോഫ്റ്റൊന്നുമല്ല ഭയങ്കര ഹാർഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത കുറേ സോഫ ഐറ്റംസും ഉണ്ട്